ഇരിക്കുന്നത് അവിടെ നമ്മള് ഓണത്തിന് ഓ പിന്നെ ഈ വള്ളംകളിയെ കുറി വടംവലിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് വടംവലി എന്ന് പറഞ്ഞാൽ രണ്ട് ടീം ആയിട്ട് ഇങ്ങനെ നിൽക്കും ഒരു സൈഡിൽ പത്ത് പേര് മറ്റെ എതിർവശത്ത് പത്ത് പേര് ആ പത്ത് പേരിൽ ഇങ്ങനെ വന്നിട്ട് അവര് വടംവലിയിൽ ഇങ്ങനെ നിന്നിട്ട് പിന്നെ ഈ പത്ത് പേര് നടുക്ക് ഒരു വരയിടും അതിൻ്റെ അപ്പറത്തും ഇപ്പറത്തും രണ്ട് സൈഡിലും ഒരേ മീറ്റർ വെച്ച് ഇതുപോലെ പിന്നെയും വരയിടും ആ വരയില് നമ്മള് അവര് സ്റ്റാർട്ട് പറയുമ്പോഴത്തേനും അത് ഒരു നടുക്കുനിന്ന് ഒരു കല്ല് താഴോട്ടിട്ടിട്ട് വരി അവര് വടംവലി തുടങ്ങും ആ വടംവലിയുടെ ത സമയത്ത് ര ഒരു സൈഡിൽ അങ്ങോട്ടും പോകും ഒരു സൈഡിൽ ഇങ്ങോട്ടും പോയി കഴിഞ്ഞിട്ട് അത് രണ്ട് സൈഡ് കൂട്ടരും വലിക്കും രണ്ട് സൈഡിലും കൂട്ടരും വലിച്ചാൽ ഈ വരയുടെ അപ്പുറത്തോട്ട് കാലു കുത്തുവാണെങ്കിൽ അത് ഫൌൾ ആകും അല്ലാത്തതാണെങ്കിൽ അത് ജയിച്ചു വരും അതുപോലെ തന്നെയാണ് നമ്മുടെ ഇവിടെ നമ്മുടെ ഈ പ്രദേശത്തൊരു പ്രധാന കളിയാണ് കബഡി കളി എന്ന് പറഞ്ഞാൽ കബടികളി ഇതുപോലെ രണ്ട് രണ്ട് ടീം ആയിട്ട് നിൽക്കും എതിർ ടീമും അല്ലാത്ത ടീമും ആ ടീമില് ഇങ്ങനെ ഒരു ടീമില് ഇപ്പോൾ പത്ത് പേരുണ്ടെങ്കിൽ മറ്റേ സൈഡിലും പത്ത് പേരുണ്ട് ആ പത്ത് പേരിൽ നമ്മള് ശ്വാസം വിടാതെ നമ്മളിങ്ങനെ പറയണം കബഡി പറഞ്ഞ് കബഡി കബഡി കബഡി പറഞ്ഞു പോയിട്ട് നമ്മൾ എതിർവശത്തുള്ള ആൾക്കാരെ തൊടണം എതിർവശത്തുള്ള ആൾക്കാരെ തൊട്ടു കഴിയുമ്പഴത്തേനും അത് അവര് ന തൊട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ തിരിച്ചു വരാം അല്ലെങ്കിൽ നമുക്ക് അടുത്ത ആൾക്കാരെ നമുക്ക് ശ്വാസം പിടിച്ച് കബഡി കബഡി ശ്വാസം വിടാതെ പറഞ്ഞു പറഞ്ഞു പോകുമ്പഴത്തേനും അത് പിന്നെ ഇത് ചെയ്യും അത് അങ്ങനെ ചെയ്തു കഴിയുമ്പഴത്തേനും മറ്റേ കബടി പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പോയി കഴിഞ്ഞിട്ട് നമ്മള് മറ്റേ സൈഡിൽ നമ്മളെ പിടിച്ചു വെച്ചാലും നമ്മള് തിരിച്ച് കബഡി പറഞ്ഞ ആൾക്കാര് പിടിച്ചു വെച്ചാലും തിരിച്ചു വന്നിട്ട് മറ്റേ ആൾക്കാരും

അതുകഴിഞ്ഞ് പിന്നെ നമ്മള് കബഡി പറഞ്ഞു ശ്വാസം വിട്ട് വിട്ടുകഴിഞ്ഞാല് ഇത് എന്ത് ചെയ്യുമെന്ന് വെച്ചാല് ശ്വാസം വിട്ടു കഴിഞ്ഞാല് നമ്മൾ തോറ്റുപോകും അതുകാരണം ശ്വാസം വിടാതെ നമ്മള് കബഡി കബഡി പറഞ്ഞു പറഞ്ഞു പോകണം എന്നിട്ട് തിരിച്ച് നമ്മള് ഇപ്പുറത്ത് വരയുടെ ഇപ്പുറത്ത് വരുവാണെങ്കിൽ നമ്മുടെ ടീം ജയിച്ചു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും രണ്ട് ടീമിലും അപ്പുറത്തും രണ്ട് ടീമിലും മാറിമാറി ഇങ്ങനെ കബടി പറഞ്ഞു പോകും നമ്മളെ പിടിച്ചു വെച്ചുകഴിഞ്ഞാല് നമ്മളെ ശ്വാസം വിട്ടു കഴിഞ്ഞാൽ അവര് തോ നമ്മൾ തോറ്റുപോകും അങ്ങനെ ആണ് കബഡി കളി അതുപോലെ നമ്മുടെ ഈ പ്രദേശത്ത് ഒരു പ്രത്യേകതയാണ് തിരുവാതിര കളി തിരുവാതിരകളി എന്ന് പറഞ്ഞാൽ എല്ലാവരും സെറ്റ് എല്ലാം ഉടുത്തുകൊണ്ട് വരണം സെറ്റും മുണ്ടും മുണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരി ഉടുത്ത് പ ഒരു ടീമിൽ എട്ടു പേര് അല്ലെങ്കിൽ അടുത്ത ടീമില് പിന്നെ പത്ത് പേര് അല്ലെങ്കിൽ നൂറ് പേര് അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാര് ഓണത്തിനൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ നൂറും നൂറ് പേരൊക്കെ വെച്ച് കളിക്കും അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാല് നമ്മള് ഇങ്ങനെ എട്ട് സ്കൂ വിദ്യാലയത്തിൽ മാത്രമാണെങ്കില് എട്ടുപേര് വെച്ച് ഇങ്ങനെ കളിക്കും എട്ടുപേര് വെച്ച് കളിക്കും അല്ലെങ്കിൽ പത്ത് പേര് വെച്ച് കളിക്കും അത് നല്ല രസമാണ് താ നമ്മുടെ തലമുടിയൊക്കെ പിന്നി പൂ ഒക്കെ കെട്ടി മുല്ലപ്പൂവ് ഒക്കെ വെച്ച് നമ്മൾ സെറ്റുകളിക്കും നടുക്ക് ആണെങ്കിൽ ഒരു നിലവിളക്ക് തിരിയിട്ട് കത്തിക്കും പിന്നെ അതിൻ്റെ നടുക്ക് കൂടത്തിലും ഈ തെങ്ങിൻ്റെ പൂങ്കൊല വെക്കും പഴം വെക്കും തിരി കത്തിച്ചു വെക്കും അങ്ങനെയെല്ലാം വെച്ച് അവര് ഇത് ചെയ്യുന്നത് അതുപോലെ വേറൊരു ഇതാണ് നമ്മുടെ പ്രത്യേകതയാണ് ഈ തുമ്പിതുള്ളൽ എന്ന് പറഞ്ഞ് ഒര് ഓണത്തിന് ഒരു പ്രത്യേക പഴയ കാലത്തുള്ളതാണ് ഇപ്പോഴൊന്നും അതൊക്കെ ഒന്നും ചില ചില സ്ഥലങ്ങളിൽ ഒക്കെ ഉള്ളൂ തുമ്പി തുള്ളൽ എന്ന് പറഞ്ഞൊരു സ്ഥലം അതിങ്ങനെ ഒരാള് നടുക്കിരുന്ന് തുള്ളും മറ്റേ ആള് ത മ തലമുടി എല്ലാം അഴിച്ചിട്ട് അവരിങ്ങനെ ഇരുന്നാടും ആടി ആടി ആടിയവര് ഇത് നല്ല ഇതായിട്ട് വരുമ്പത്തേനും അവർക്ക് ശെരിക്കും പറഞ്ഞാൽ അവർക്ക് ബോധമില്ലെന്നായി പോകും അങ്ങനെ വന്ന് ഇതവര് കുറെ ഇതായി കഴിയുമ്പഴത്തേനും അവർക്ക് പിന്നെ ബോധംകെട്ട് അവര് വീണു പോകും അന്നേരം മറ്റുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ കൂടുകയാണ് ചുറ്റും നിന്ന് കൂവി ശെരിക്കും അവർക്കൊരു ഭ്രാന്ത് പിടിക്കുന്ന പോലത്തൊരു അനുഭവാണ് അങ്ങനെ തുള്ളി തുള്ളി തുള്ളി തുള്ളി വന്ന് അവസാനം അവര് ബോധംകെട്ട് വീണ് കഴിയുമ്പോൾ അവരുടെ ദേഹത്ത് വെള്ളമൊക്കെ ഒഴിച്ച് തണുപ്പിച്ച് അവരെ എടുത്ത് മാറ്റി കിടത്തും അതാണ് അടുത്ത് നമ്മുടെ പ്രദേശത്ത് ഒരു വേറെയൊരു കളി പിന്നെ വേറെ വള്ളംകളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൽ വള്ളംകളിയില്ല വേ അതിനെക്കുറിച്ച് എനിക്ക് തി അതായത് കേരളത്തിൻ്റെ ഒരു ഉത്സവം ആയിട്ടാണ് വരുന്നത് ഈ വെള്ളം കളി എന്ന് പറഞ്ഞാല് അത് കാരണം ത അതിനെക്കുറിച്ച് തീർച്ച് ശെരിക്കും പറയാൻ എനിക്ക് ശെരിക്കും പറയുന്നത് വള്ളംകളി ര ഇതുപോലെ തുഞ്ചൻ വള്ളംകളി എന്നൊക്കെ പറയുന്നത് അതിനെക്കുറിച്ച് എനിക്ക് ശെരിക്കും പറയാൻ അറിയത്തില്ല പിന്നെ ഉള്ളത് പിന്നേ